അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഹാങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് നല്ലൊരു പ്രോഡക്ട് ആയിട്ട് തന്നെയാണ് തോന്നിയത് എനിക്ക് ഗെയിമിംഗിന് കാര്യത്തിന് ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തിരുന്നത് അപ്പോൾ ഇത് എടുത്ത് നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ കുറെ നാൾ യൂസ് ചെയ്തോണ്ടിരുന്നത് പിന്നെ കാലക്രമേണയാണിതിന് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയത് ഇതിൻ്റെ ഡിസ്പ്ലേയ്ക്ക് കംപ്ലയിൻ്റ് വരികയോക്കെയുണ്ടായി ഇതിൽ ഡിസ്പ്ലേയിൽ ഒരു ഗ്രീൻ ലൈൻ വന്നു അതെനിക്ക് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് പിന്നെ ഇതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങി സ്ക്രീൻ തന്നെ നല്ല ഏ മോശമായി ഏ പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ആദ്യം നല്ല രീതിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫോൺ ആണെങ്കിലും കാലക്രമേണ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഭയങ്കര മോശമായി തുടങ്ങി കാരണം കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽത്തന്നെ ഇതിന് ഭയങ്കര ബു വേഗത്തിൽ തന്നെ എന്താ പറയാ ചാർജോക്കെ ഇറങ്ങാൻ തുടങ്ങി അതെനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ആദ്യം തോന്നിയത് ഇത് ഭയങ്കര എന്താ പറയാ പിന്നീടാണ് എനിക്കിതിന് നെഗറ്റീവ്സ് ഒക്കെ കുറെ വന്ന് തുടങ്ങിയത് ഇത് പിന്നെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി